ഹലോ ഇത് ഹാപ്പി വെഡ്ഡിങ്ങ് വെഡ്ഡിങ്ങ് ക പ്ലാനിംഗ് കമ്പനി അല്ലേ ഞാൻ എൻ്റെ കല്യാണമാവുവാണ് രണ്ട് ദിവസ അടുത്ത മാസം അപ്പോൾ ഞാൻ അതിനുവേണ്ടി വിളിച്ചതാണ് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് ഡേറ്റ് അടുത്തമാസം പതിനെട്ടാം തീയതി ആ ആ ആ ആ ആ എനിക്ക് വേണ്ടത് മൂന്ന് ദിവസത്തെയാണ് ബാച്ചലർ ബാച്ചലർ പാർട്ടി വെഡ്ഡിങ്ങ് പിന്നെ വെഡ്ഡിങ്ങ് റിസപ്ഷൻ പിന്നെ എനിക്ക് വേണ്ടതെന്താണെന്നുവെച്ചാൽ ഭക്ഷണം ഒക്കെ നല്ല വെറൈറ്റി ഫുഡ് ആയിരിക്കണം ഫുഡിന് എന്തൊക്കെയാണ് ഉള്ളത് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ എനിക്ക് കൂടുതൽ വേണ്ടത് ഇന്ത്യൻ മിക്സ് ചൈനീസ് അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതൽ വേണ്ടത് ഇന്ത്യൻ ചൈനീസ് സാധനങ്ങൾ നോൺ വെജും വെജും രണ്ടും ആവാം ആ അതെ നിങ്ങൾ തന്നെയാണ് തീം തീംഡ് വെഡ്ഡിങ്ങ് ആണ് കളർ തീം ഉണ്ടാവും പിന്നെയൊരു എല്ലാരും കളർ കോർഡിനേറ്റ് കളർ സെയിം കളർ സാധനമിട്ടിട്ടാവും വരുന്നതുണ്ടാവുക ആ ആ അതെയതെ ഓക്കെ ഓക്കെ ആ പിന്നെ എനിക്ക് ആ പിന്നെ എനിക്ക് കൂടുതൽ പ്രോഗ്രാമുകളൊക്കെ വേണം എന്നുണ്ട് ഏതാണെന്നുവെച്ചാൽ പാട്ട് എക്സ്ട്രാ മ്യൂസിക് ആ മ്യൂസിഷ്യൻസ് ഒക്കെ വേണം എന്നുണ്ട് ആ ഓക്കെ ഓക്കെ

ഓക്കെ ഓക്കെ ആ ആ അതുപോലെ ആ നിങ്ങൾ ചെയ്തോളൂ പിന്നെ ഞാൻ ചോദിക്കുന്നതെന്താണെന്നുവെച്ചാൽ ഇതിനെല്ലാം കൂടി എത്ര പൈസയാവും ഭയങ്കര കുറേ എമൗണ്ട് ആകുമോ ആ രണ്ടരലക്ഷത്തിന് മേലെ ആവുമല്ലേ

ആ അതും ഉണ്ട് അത് ബാച്ചലർ പാർട്ടിയുടെ അന്ന് രാവിലെ

ആ ആ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഞാൻ എന്താണ് ചോദിക്കുന്നത് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടാവുമല്ലോ അല്ലേ ഒരു ഒരു ഒരു ടെൻ പെർസെൻറേജ് ട്വൻറി പെർസെൻറേജ് ഡിസ്കൗണ്ട് ഉണ്ടാവുമല്ലോ ഓക്കെ ഓക്കെ ആ ഓക്കെ ഇത് ഉറപ്പിച്ചോളൂ എങ്കിൽ ശരി താങ്ക് യു താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു